ഹലോ ഓ ഇന്നാണോ അടുത്താഴ്ച പോയാൽ പോരെ ഓ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ അടുത്താഴ്ച്ച അത് ഒ ടി ടി വരുന്നത് നമുക്ക് ഒ ടി ടി കാണാം ഇല്ലന്നേ കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതേ പോലെ പ്ലാൻ ചെയ്തു പോയി പിറ്റേ ദിവസം നമുക്കത് ഒ ടി ടിയിലവൈലബിളായി നമ്മളിപ്പോൾ അത് ഒ ടി ടി പോയി കാണാമെന്നേ അത് നമുക്ക് വലിയ ചിലവില്ലല്ലോ ഇതിപ്പോൾ സമയം ഇല്ല പോകാനാണേ തന്നെ എങ്ങനെയാണത് നമുക്കിപ്പോൾ അത് നാ അടുത്താഴ്ച നെറ്റ്ഫ്ലിക്സിലോ എന്തിലെങ്കിലും അവൈലബിളാകുമല്ലോ അത് പിന്നെ പിറ്റേ ദിവസം നമുക്ക് ടെലിഗ്രാമിലെങ്ങനായാലും അവൈലബിളാകും നമുക്കങ്ങനെ ഡൗൺ ലോഡിൽ കാണുന്നതല്ലേ നല്ല നമുക്കിപ്പോൾ നമുക്കിനി അടുത്ത പ്രാവശ്യം അത് അങ്ങനെയാണ് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്നത് തീയേറ്ററിൽ പോയി തന്നാൽ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് സമയം ഇല്ലല്ലോ നമുക്ക് ഇന്നൊരു പ്രോഗ്രാമുണ്ടായിരുന്നു നമുക്കപ്പോൾ നാളെ പോകാൻ നാളെ വരുന്നത് ഒ ടി ടിയിൽ അപ്പോൾ കണ്ടാൽ പോരെ നാളെയല്ല ഈയാഴ്ച്ച ആരാണ് പറഞ്ഞത് പക്ഷേ അത് ഒ ടി ടി കാണുമ്പോഴും വ്യത്യാസം എന്താ വരുന്നത് വ്യത്യാസം വലുതൊന്നും ഇല്ലല്ലോ കണ്ടൻ്റെല്ലാം ഒന്നു തന്നെയല്ലേ തീയേറ്റർ എക്സ്പീരിയൻസ് ഓക്കെയാണിപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നമ്മുടെ ഈ തെവറെപ്പോഴെങ്കിലും വലുതായിട്ട് പോ റ്റിയറ്ററിനകത്തെയ്യാറില്ലല്ലോ എല്ലാം ഒ ടി ടിയിലവൈലബിളല്ലേ ആ നെറ്റ്ഫ്ലിക്സിൽ മാത്രമല്ലെപ്പോഴും കാണുന്നത് അല്ല പല ഹോം പ്ലാറ്റ്ഫോമുകളില്ലേ അത് നമുക്ക് ഏതിലാണവൈലബിളതിൽ കിട്ടും നമ്മളതേ പോലെ തന്നെ പിറ്റേ ദിവസം ടെലെഗ്രാമിലവൈലബിളാകുമല്ലോ എങ്ങനെയായാലും ഡൗൺ ലോഡ് ചെയ്ത് ഡൗൺ ലോഡ് ലേറ്റൊന്നും ആകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ടോ നമ്മൾ പോയപ്പോൾ ആ പിറ്റേ ഒരാഴ്ചക്കുള്ളിൽ അത് ഒ ടി ടി വന്നിനാ ഒ ടി ടിയിൽ നീ കണ്ടില്ലേ കണ്ടല്ലോ ആ ഒ ടി ടി കാണുന്നതു കൊണ്ടും റ്റിയേറ്ററിൽ കാണുന്നതു കൊണ്ടും വലിയ വ്യത്യാസം നമുക്ക് തോന്നിയില്ലല്ലോ എന്നിട്ട് ഈയാഴ്ച അതെയതെ നമുക്കിനി അടുത്ത പ്രാവശ്യം നോക്കാം ഈയാഴ്ച ഇനി സമയം ഇല്ല നമുക്ക് ഇത്തിരി അത്യാവശ്യം വേറൊരു പ്ലാനുണ്ടായിരുന്നു ഒരു യാത്രയൊക്കെയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നടക്കത്തില്ലത് ഈയാഴ്ച ഈ അമരൻ അടുത്താഴ്ച നമുക്ക് ഒ ടി ടിയിലവൈലബിളാകും നമുക്കപ്പോൾ കാണാം